ഞങ്ങളുടെ വീട്ടിൽ കക്കൂസുണ്ട് പിന്നെ കക്കൂസിൻ്റെ ഉപയോഗമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അത് ഉള്ളതുകൊണ്ട് മറ്റ് പുറത്ത് ഒന്നും പോകേണ്ടെതായിട്ട് വരുന്നില്ലല്ലോ പഴയ കാലത്തെ പോലെ അപ്പം എത്രയും പിന്നെ അത്യാവശ്യം ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു കക്കൂസ് എന്ന് പറയുന്നത് അതുള്ളതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അത് ഏത് സമയവും ഉപയോഗിക്കാം രാത്രി എന്നോ പകലെന്നോ ഒന്നും ഇല്ല ഇപ്പം പെരയ്ക്കകത്തും പുറത്തും ഒക്കെ ഉള്ളതുകൊണ്ട് പഴയ കാലത്തെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളതുകൊണ്ട് നല്ല ഇതാണ് അത് ഏത് പ്രായക്കാർക്കും കയറി ഇരിക്കാവുന്ന മോഡൽ നല്ല മുട്ടിനു വേദനയുള്ളവർക്ക് ഇരിക്കാം അത്രയും യൂറോപ്പ്യൻ ക്ലോസറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള അത്രയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് ഒരു കക്കൂസ് ആവുമ്പം ശരിക്കും നമുക്ക് അത്യാവശ്യം ആണല്ലോ അത് പിന്നെ ഗുണം ചെയ്യുന്ന ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്